മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റവും വലിയ ഉത്സവമാണ് അവർക്ക് കിട്ടുന്ന കടലിലുണ്ടാകുന്ന ചാകര ആ ചാകരയെന്നു പറയുന്നത് അവരുടെ ഉത്സമായിട്ടാണ് അവർ അതിനെ കണക്കാക്കുന്നത് ഒരു ഒരു ചാകര കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചാകര വന്ന് കഴിഞ്ഞാൽ ഒരു ഒരാൾ മാത്രം അതിനെ പിടിക്കാനായിട്ട് അല്ല അതിനു വരുന്ന ആ തുറയിലുള്ള എല്ലാ ആൾക്കാരും എല്ലാ ആൾക്കാരും വിവരം അറിയിച്ചു ആ ഇന്ന ചാകരയുണ്ട് എല്ലാവരും ഒത്തൊരുമയോടു കൂടി അതിനെ പിടിക്കാനായിട്ടും അത് അവർ പിടിച്ചുകൊണ്ടുംവന്ന് കരയിൽ വിറ്റ് കാശാക്കി അവർ അതൊരു ഉത്സവം പോലെയാണ് അതിനെ കാണുന്നത് അല്ല